പ്രാർത്ഥനയെ കുറിച്ചും ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന ആളാണേ അതുകൊണ്ട് ക്രിസ്ത്യൻ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചും അല്ലേ ക്രൈസ്തവ ആരാധനയെ കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചുമാണേ എനിക്ക് പറയാൻ സാധിക്കുന്നത് പ്രാർത്ഥന എന്നു പറയുന്നത് മനുഷ്യന് ഏറ്റവും ബലം നൽകുന്ന ദൈവവും മനുഷ്യനുമായിട്ടുള്ളൊരു അടുപ്പം അല്ലേ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന ഇന്നത്തെ ലോകത്തിൽ അല്ലേൽ സമൂഹ ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ടേ ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദൂരീകരിക്കാനും അല്ലേൽ നമ്മുടെ ഏതു വിഷമത്തെയും നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കാനായിട്ട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പ്രാർത്ഥന ഒരുപാട് സഹായിക്കാറുണ്ട് അതിനാണ് അതിനായിട്ട് പരിശുദ്ധ കുർബാന നെ ക്രൈസ്തവ ആരാധനയിൽ ഏറ്റവും പ്രധാനമാണ് പരിശുദ്ധ കുർബാനയെന്നുള്ള ആരാധന പരിശുദ്ധ കുർബാന എന്നെ അതിന് വളരെയേറെ സഹായിക്കാറുണ്ട് നിസ്സാരനായ മനുഷ്യനെ മനുഷ്യന് അവൻ്റെ എല്ലാ ബലവും നൽകാനെ അല്ലേ അവൻ്റെ ആവശ്യ കാര്യങ്ങൾ ഭൗതിക ജീവിതത്തിലും മാനസികവും ശാരീരവുമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ അവൻ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന് അതീതമായി ജീവിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല ഏറ്റവും പരമോന്നതനായ എന്തൊക്കെ ശാസ്ത്ര ലോകം എന്തെല്ലാം എത്രയും വികസിച്ചാലും എല്ലാറ്റിൻ്റെയും ഒന്നാമത്തെ എല്ലാം ഇതെല്ലാം എല്ലാം ഭൂമി മുഴുവനും സൃഷ്ടിച്ച തമ്പുരാൻ ദൈവം കഴിഞ്ഞിട്ടേയുള്ളൂ മറ്റെന്തു കാര്യങ്ങളും അതെല്ലാം ഈ ഭൂമിയിൽ എല്ലാം സൃഷ്ടിച്ചതും എല്ലാം നേടുന്നതും ദൈവമാണ് അപ്പം ദൈവത്തെ കൂട്ടു പിടിച്ച് മാത്രമേ മനുഷ്യൻ എന്തും സാധിക്കുകയുള്ളെന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ദൈവത്തെ കൈവിട്ടു കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ഏറ്റവും പ്രധാനമായി എനിക്കെൻ്റെ ശരീരത്തിനും മനസ്സിനും സാമൂഹ്യ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശാരീ മാനസിക ബുദ്ധിമുട്ടുകൾ അതു രോഗ സംബന്ധമായാണെങ്കിലും കുടുംബപ്രശ്നങ്ങളാണെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ ദുഃഖവും പ്രയാസവും സന്തോഷവും എല്ലാം ദൈവത്തിലർപ്പിച്ച് ജീവിക്കുമ്പോഴുള്ള നമുക്കൊരുപാട് ബലം ജീവിതത്തിൽ മുന്നോട്ടു കടന്നു പോകാനായിട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളും പലതരത്തിലെ വിഷമങ്ങളെ സന്തോഷങ്ങളെ ഒക്കെ നമുക്ക് കുടുംബ ജീവിതത്തിലെ ല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടു വരും അപ്പോൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമെല്ലാം തരണം ചെയ്ത് പോകാനായിട്ട് പ്രാർത്ഥന ദൈവത്തെ കൂട്ടു പിടിക്കാൻ ദൈവത്തെ ചേർത്തു പിടിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുന്നത് പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാനയും ദിവ്യ കാരുണ്യ ആരാധനയും ഒക്കെ എന്നാ ഒരു ക്രിസ്ത്യാനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ബലം നൽകുന്ന കാര്യമാണ് അപ്പം അതുപോലെ അതുകൊണ്ടുതന്നെ എനിക്ക് ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാഹചര്യം കിട്ടുന്ന ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്താറില്ല എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒരു പള്ളിയിൽ പോയാൽ ലല്ലേ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് ഒന്ന് പള്ളിയിൽ പോയിരുന്നാൽ ദൈവത്തിനു മുന്പിൽ മുട്ടുകുത്തി ആരാധിച്ചാൽ അല്ലേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഏതു വിഷമവും എനിക്ക് മാറി കിട്ടുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ശക്തിയും ബലവും ത നൽകുന്നതെന്നാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന ഏതുതരമുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ ക്രൈസ്തവ ആരാധനയിൽ സംബന്ധിച്ചും പരിശുദ്ധ കുർബാന മാത്രമല്ല ധ്യാനവും ഉപവാസവും ഒക്കെ ആരാധനയോട് ചേർന്നു നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും എൻ്റെ കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മക്കൾക്കു വേണ്ടിയും അവരുടെ നല്ല ജീവിതത്തിനു വേണ്ടിയും ഇന്നത്തെ ലോകത്തു തന്നെ ചീത്ത കൂട്ടുകെട്ടിലും മറ്റു കാര്യങ്ങളും ഉൾപ്പെടാതെ കടന്നു പോകാനായിട്ട് അല്ലേ അവർക്കു ബലം കിട്ടാനായിട്ട് അവരിലും ഇതേ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഒരു നന്മയെന്താണെന്നും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള തിരിച്ചറിവുണ്ടാകാനായിട്ടു ദൈവത്തോടുള്ള ചേർന്നുള്ള ജീവിതവും അടുപ്പവും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ പ്രാർത്ഥന ജീവിതവും കാര്യങ്ങളും ഞാൻ പകർന്നു നൽകാറുണ്ട് അവരെ ഉപദേശിക്കാറുണ്ട് അവർക്കതിനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അവരെ അതിനു വേണ്ടി ഉത്സാഹിക്കപ്പി ഉത്സാഹിപ്പിക്കാറുണ്ട് അവരെ ഉത്സാഹത്തോടു കൂടി അവരതിൽ പങ്കുചേരാൻ അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ ഞാൻ നിരുത്സാഹപ്പെടുത്താറില്ല അവരെ ആ വഴിയിൽ തന്നെ അല്ലെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന നല്ല സ്വഭാവത്തിലൂടെ കടത്തിവിടുവാനായിട്ട് അല്ല ദൈവത്തെ വിശ്വസിച്ചും ദൈവത്തെ ഭയത്തോടെ ദൈവഭയത്തോടുകൂടി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചീത്ത കൂട്ടുകെട്ടിലോ മറ്റുകാര്യങ്ങളിലോ ഇന്നു നമ്മൾ കാണുന്ന ഒരു തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടിലും ചെറുപ്രായം തൊട്ടേ അവർക്കു കടന്നു പോകാതെ അവരെ ചേർത്തു നിർത്താനായിട്ടവരതിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കാനായിട്ട് സാഹചര്യം വരരുത് എന്നാണ് പ്രാർത്ഥന അതുകൊണ്ട് പ്രാർത്ഥനയും ആ പ്രാർത്ഥ ആരാധനയും എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായി ഞാൻ കരുതുന്നു